ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഇതേപോലെ കീടനാശിനി തളിച്ച പച്ചക്കറികളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ വെറും വെള്ളത്തിൽ ഇത് കഴുകിയതുകൊണ്ട് മാത്രം അതിലെ അണുക്കൾ ഒന്നും നശിക്കണമെന്നില്ല ആദ്യം ഒക്കെ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാറ് മാത്രമേ ചെ ചെയ്തിട്ടുള്ളായിരുന്നു വീട്ടിൽ ആണെങ്കിലും ജസ്റ്റ് ഇതേ കണക്ക് വെള്ളത്തിൽ കഴുകി എടുക്കും എന്ത് പച്ചക്കറി ആണെങ്കിലും വെള്ളത്തിൽ കഴുകി എടുക്കും അപ്പോൾ അതിലുള്ള ഇതൊക്കെ പോകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നീട് നമുക്ക് ഈ ഇതേപോലെ ഈ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം എല്ലാം പറയുന്നുണ്ട് അതായത് നമ്മൾ വെറും വെള്ളത്തിൽ കഴുകി കഴുകിയതുകൊണ്ട് മാത്രം ഈ കീടനാശിനികൾ ഒന്നും ന നശിക്കുന്നില്ല ഇവർ ഈ കീട ഈ ഒത്തിരി നാൾ ഇരിക്കാൻ വേണ്ടി കുറേ കീടനാശിനികൾ അടിച്ചിട്ടാണ് ഈ ഇത് ഇതിനെ സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേ കണക്ക് വീഡിയോ കണ്ടിട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് ഈ വെള്ളത്തിൽ വെള്ളം ചൂടാക്കി അതിൽ മഞ്ഞൾ ഇട്ട് അതിനകത്ത് ആ ചൂടായ വെള്ളത്തിൽ ഈ പച്ചക്കറികൾ കഴുകി എടുത്ത് അതിലെ കീടനാശിനികൾ ഒക്കെ ന നശിക്കുമെന്ന് ഇതേ കണക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേർ അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിനു ശേഷമാണ് എന്താണ് ഇങ്ങനെ ഞങ്ങൾ പച്ചക്കറി വാങ്ങിച്ചാലും ഇതേപോലെ എന്തുണ്ടെങ്കിലും ഈ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളത്തിലാണ് കഴി അതായത് ചൂടാക്കിയ വെള്ളത്തിൽ ആ വെള്ളത്തിലാണ് കഴുകി എടുക്കാറ് എന്നാലും എന്നാൽ മൊത്തവും കി കീടാണുക്കൾ നശിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും വെറും വെള്ളം വെച്ച് മാത്രം നമ്മൾ കഴുകിയാൽ ഉറപ്പായിട്ടും അതിലെ ഇതൊന്നും നശിക്കാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ അതായത് ഈ ചൂട് വെള്ളത്തിൽ മഞ്ഞൾപ്പോടി ഇട്ട് ഇട്ട ചൂട് വെള്ളത്തിൽ കഴുകി എടുത്താൽ ഒരുവിധം അണുക്കളൊക്കെ നശിക്കും ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് ആണ് ഈ ഒരു ഇത് ഇതാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരിതാണ് ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം അതായത് കുറേ നാൾക്ക് മുന്നേ വരെ ഞങ്ങൾ ഇതേ കണക്ക് വെള്ളത്തിലായിരുന്നു കഴുകിക്കോണ്ടിരുന്നത് വെറും വെള്ളത്തിൽ പക്ഷേ അതിനെക്കാട്ടി ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ അതായത് ഈ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കുന്നതാണ്